ഒൻപത് ആറ് രണ്ടായിരത്തി മൂന്ന് ഒൻപത് ഒന്ന് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് മൂന്ന് തൊള്ളായിരത്തി എഴുപത് പതിനഞ്ച് അഞ്ച് തൊള്ളയിരത്തി എൺപത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഒന്ന്